ഞങ്ങളുടെ പ്രദേശത്ത് വിനോദസഞ്ചാരികള്ക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ വരാറില്ല ഇവിടെ ഗൈഡഡ് ടൂർ ഇംപ്ലിമെൻറ് ചെയ്യുന്നവർ ഉണ്ട് അവരെ അത്യാവശ്യം ഒരുവിധം ഇന്ത്യയിലെ തന്നെ ഭാഷകളും പിന്നെ ഇൻ്റര്നാഷണല് ആയിട്ടുള്ള ഭാഷയായ ഇംഗ്ലീഷും അറിയാവുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവര്ക്ക് ബുദ്ധിമുട്ടുകള് വരാറില്ല അവർ എവിടെ വേണമെങ്കിലും അതായത് നമുക്കൊരു കൃത്യമായൊരു പ്ലാന് അവർ സെറ്റ് ചെയ്യുന്നു അതുവഴി അത് വെച്ചിട്ടാണ് അവർ ഓരോ സ്ഥലത്തും നമ്മളെ കൊണ്ടുപോവുക അവിടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ആക്റ്റിവിറ്റീസ് ഉണ്ട് എല്ലാം അവർ നമുക്ക് പറഞ്ഞ് തരുന്നതാണ് അവർ എപ്പോഴും നമുക്കൊരു ഒരു ഹെല്പ്പ് ആണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു എമര്ജെന്സി വന്നാൽ പോലും അവർ നമ്മുടെ കൂടെ നിൽക്കും നമുക്കിപ്പോൾ ഒര് ഹോസ്പിറ്റലില് പോവണം എന്തെങ്കിലും അസ്വസ്ഥതകള് വരുവാണ് അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് അവരെ വളരെ ഹെല്പ്പ്ഫുള് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ നിൽക്കും